വയറിളക്കത്തിനു ഏറ്റവും നല്ല മരുന്ന് ചെറുനാരങ്ങ പിഴിഞ്ഞ് ചായയിൽ കുടിക്കുക അതേപോലെ ഉപ്പിട്ട വെള്ളം കുടിക്കുക അങ്ങനെ അങ്ങനെ ചെയ്തുകഴിഞ്ഞാൽ കുറേ വയറിളക്കം നിക്കും മോരില് മോരും കഞ്ഞിവെള്ളവും കൂടി മിക്സ് ആക്കീട്ടു സമ മിക്സ് ആക്കീട്ടു കുടിക്കുക പെട്ടെന്ന് വയറിളക്കം നിൽക്കുന്നതായിരിക്കും ഇടക്കു വയറിളക്കുന്ന മരുന്ന് വാങ്ങിക്കഴിച്ച് വയറിളക്കി ഇളക്കിക്കഴിഞ്ഞാൽ ഇടക്ക് ഇടക്ക് ഇങ്ങനെ വയറിളക്കം വരുന്ന പ്രശ്നം നിക്കുന്നതായിരിക്കും വയറു ക്ലീൻ ആയിരിക്കും അങ്ങനെ നമ്മൾ ഇത് ഇടക്ക് ഇടക്ക് മാസത്തിലോ വർഷത്തിലോ മറ്റോ വയറിളക്കുകയാണേൽ വയറു ക്ലീൻ ആയിരിക്കും അതല്ല നല്ല ഫുഡ്ഡ് നോക്കി കഴിക്കുക പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ വയറിളക്കം കുറയുന്നതായിരിക്കും പിന്നെ ലെമൺടീയിൽ മധുരം കുറച്ചിടണം എന്നാലേ വയറിളക്കം പെട്ടെന്ന് കുറയുകയുള്ളൂ പിന്നെ ഉപ്പില് ചെറുനാരങ്ങ പിഴിഞ്ഞു കുടിക്കുക ഉപ്പ് ചായ കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്തുകഴിഞ്ഞാൽ വയറിളക്കം കുറയുന്നതായിരിക്കും അതേപോലെ വയറു നല്ല ശുദ്ധിയോടെ വെക്കുക നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക എന്നാൽ വയറിളക്കം കുറയുന്നതായിരിക്കും